ഞാൻ പഠിച്ചത് തിരുവനന്തപുരത്തുള്ള ശിശുവിഹാര് യു പി സ്കൂളിലാണ് എന്റെ ഓര്മ്മയിൽ തങ്ങി നിൽക്കുന്നതും ഏറെ ആസ്വാദ്യകരമായിട്ടുള്ള ചില യാത്രകളാണ് എന്റെ കൂട്ടുകാരോടൊപ്പം സ്കൂളിൽ നിന്ന് നടത്തിയ ചില എക്സിബിഷനുകളാണ് പൊന്മുടി തേക്കടി കല്ലടയാർ വീഗാലാൻഡ് പോലെയുള്ള ചില സ്ഥലങ്ങൾ സ്കൂളിൽ നിന്ന് എക്സിബിഷന് കൊണ്ടു പോയത് ഇന്ന് ഓർമ്മയിൽ ഒരുപാട് തങ്ങി നില്ക്കുന്നുണ്ട് പിന്നീട് നവംബർ പതിനാലിന് ശിശുവിഹാര് സ്കൂളില് നിന്നും ശിശുദിന റാലി ഞങ്ങളുടെ എല്ലാം കൂട്ടുകാരെയും അവിടെ നിന്ന് ഈ റാലിക്ക് കൊണ്ട് പോയത് ഇന്നും ഓര്മ്മയില് തങ്ങി നിൽക്കുന്നുണ്ട് ആ ദിവസം എല്ലാവരും വെള്ള കമ്മൽ വെള്ള മുത്തുമാല വെള്ള വളയൊക്കെ വെള്ള റിബൺ ഒക്കെ കെട്ടി ഒരേ രീതിയില് എല്ലാവരെയും അണിയി ഞങ്ങളുടെ ടീച്ചര്മാരും മറ്റു കൂട്ടുകാരുടെ രക്ഷകർത്താക്കളൊക്കെ ചേർന്ന് എല്ലാ കുട്ടികളെയും ഒരേപോലെ അണിയിച്ചൊരുക്കി കി ഒരേ യൂണിഫോമിൽ വെള്ള പാവാട പച്ച പാവടയും വെള്ള ഷര്ട്ടും ഇട്ടു ഒരേ രീതിയിലുള്ള യൂണിഫോമില് വിദ്യാലയത്തിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് റോഡിലൂടെ വരിവരിയായി ത് നടന്ന് തിരിച്ചു ഞങ്ങളുടെ അതേ സ്കൂളിലേക്ക് തന്നെ എത്തി റാലി സമാപിക്കുന്നത് ഇന്നും ഓര്മ്മയില് തങ്ങി നില്ക്കുന്നുണ്ട് അതൊക്കെ ഏറെ ആസ്വദിക്കുന്നതാണ് ഒരുപാട് സ്ഥലങ്ങളില് അങ്ങനെ സ്കൂളില് നിന്നും എക്സിബിഷനിൽ കൊണ്ടു പോയിട്ടുണ്ട് കൂട്ടുകാരോടൊപ്പം അങ്ങനെ പോകുമ്പോൾ അത് എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ചില ഓർമ്മകളുണ്ട് ഇന്ന് ഞാനൊരു സംരംഭകയാണ് ഇന്നും കൂടെയുള്ള മറ്റ് സംരംഭകരുടെ കൂടെ പല സ്ഥലങ്ങളിലും ഇതേപോലെ എക്സിബിഷൻ സ്റ്റോളുകള് ഞങ്ങൾ തൻ ഞങ്ങളുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വിപണത്തിന് വയ്ക്കുകയും പല കൃഷി മേളകളിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ അത് ഒരുപാട് നമ്മുടെ കൃഷി സുഹൃത്തുക്കളെ കാണാൻ പറ്റുന്നത് നല്ല ചില പുതിയ പുതിയ അനുഭവങ്ങളാണ് ഒരുപാട് പല സ്ഥലങ്ങളില് നിന്നുള്ള ആള്ക്കാർ അത്തരം മേളകൾ കാണാന് വരുമ്പോള് പുതിയ പുതിയ ആള്ക്കാരെ പരിചയപ്പെടാന് കഴിയുമ്പോള് അത് നമുക്കൊരു പുതിയ അനുഭവം തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നോക്കി അവരെ ഞങ്ങളോട് പിന്നീട് ആ നമ്പറിലേക്ക് വിളിച്ച് ആ ഉൽപ്പന്നങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുമ്പോള് അത് ഞങ്ങള്ക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നതാണ് കാരണം മായം ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ ഞങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കി ഞങ്ങൾ മറ്റൊരാൾക്ക് കഴിക്കാൻ കൊടുക്കുകയും അത് കഴിച്ച ശേഷം അവർ അതിനു അഭിപ്രായം പറയുകയും ചെയ്യുമ്പോൾ നമുക്കത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇന്നലെയും കർണാടകയിലെ വിട്ട്ല എന്ന സ്ഥലത്ത് ഒരു കൃഷി മേളയിൽ പങ്കെടുക്കാൻ ഇടയുണ്ട് ഇടയായി കൂടെയുള്ള മറ്റുള്ളവരോടൊപ്പം ഞങ്ങളൊരു ടൂർ പോകുന്നത് പോലെ ഒരുപാട് ആസ്വദിച്ചാണ് അത് ചെയ്തത് പല മേഖലകളിൽ നിന്നുള്ള ഒരുപാട് കര്ഷക സുഹൃത്തുക്കളെ കാണാൻ കഴിഞ്ഞു അതൊരു പുതിയ അനുഭവം തന്നെ ആയിരുന്നു ഇനിയും ഒരുപാട് കൃഷി മേളകള് പങ്കെടുക്കാൻ വേണ്ടി എല്ലാം തയ്യാറായി കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഞങ്ങൾക്ക് പുതിയ അനുഭവം തന്നെയാണ് ഇതൊക്കെ ഞങ്ങള് ഏറെ ആസ്വദിച്ച് ചെയ്യുന്ന കാര്യവുമാണ് അങ്ങനെ കെ ചെയ്യുമ്പം ഞങ്ങളുടെ മനസ്സിന് അത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്